ഹലോ ആ നമ്മളെ ഞങ്ങൾക്ക് നെന്മാറ വല്ലങ്ങി വേലയെക്കുറിച്ചു നമുക്ക് അറിയണം കാരണം നമുക്ക് വരാൻ വേണ്ടീട്ടാണേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ ഇതെവിടെയാ ഏത് പ്ലേസിലാ നടക്കണതെന്നു പറഞ്ഞു തരുമോ മ് പാലക്കാടുനിന്നുതന്നെയാണ് പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഏതു റൂട്ടിലാ ബസ് കയറേണ്ടതെന്നു അറിയില്ല മ് അവിടെ നിന്ന് കുറേ ഉള്ളിലേക്ക് പോവാനുണ്ടോ അതെ അല്ലേ അതെ എങ്ങനെയാണു രാവിലെ എത്ര മണിക്കായിരിക്കും ശരിക്കും വേല സ്റ്റാർട്ട് ചെയ്യുക

നമ്മളപ്പോൾ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെല്ലാ വേലയും കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാവുമോ അവിടെ ഉച്ചക്ക് ഉണ്ടാവുമല്ലേ അതെ അതെ ആ

അതെ അതെ ആഹ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മറ്റേ വെടിക്കെട്ടൊക്കെ ഇനി എത്രമണിക്കാ സ്റ്റാർട്ട് ചെയ്യുക എത്ര മണിവരെയുണ്ടാകും അതിപ്പോൾ അതെ അതെ രണ്ടും കൂടി ഒരുമിച്ചാണോ പൊട്ടിക്കുക അതെയല്ലേ എങ്ങനെ രണ്ടു ദിവസവും പൊട്ടിക്കാറുണ്ടോ ആ ഓക്കെ ഓക്കെ എങ്ങനെ അമ്പലത്തിൻ്റെ സ്ഥലത്തു തന്നെയാണോ അവിടെ വെടിക്കെട്ട് നടത്താറ് മ് അതെയല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വൈകുന്നേരം തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ

ആ ആ ആ ചേട്ടൻ്റെ പേരന്തെന്നാണ് പറഞ്ഞത് ആ അതെയല്ലേ ശരി ചേട്ടാ ഞങ്ങള് വരുമ്പോൾ വേലയ്ക്ക് വരുന്ന സമയത്തെന്നാൽ കാണാം വിളിക്കാം വളരെ സന്തോഷം ആ ആ ഓക്കെ ശരി ചേട്ടാ